ആദ്യം ഫ്ലിപ്പ് കാർട്ടിലേക്ക് പ്രവേശിക്കുക അതിന് ശേഷം വേണ്ട സാധനം എന്താണെന്ന് സെർച്ച്യ്യാ അതിൻ്റെ വില ആ റേയ്റ്റിങ്ങ് ഒക്കെ പരിശോധിക്കുക കൂടാതെ ഇതേ വിലയ്ക്ക് തന്നെ മറ്റ് ബ്രാൻഡുകൾ ആ ലഭ്യമാണോ എന്ന് പരിശോധിക്കുക അതിൻ്റെ വിലയും റേയ്റ്റങ്ങുമൊക്കെ നോക്കുക അതിന് ശേഷം നമുക്കിഷ്ടപ്പെട്ടവ സെലക്ട്യ്ത് കാർട്ടിലേക്ക് ആഡ്യ്യുക ശേഷം നമ്മള് പേയ്മെൻറ്റ് അടച്ച് നമുക്കിഷ്ടപ്പെട്ട ആ സാധനം ബുക്ക്യ്യാ